ഞങ്ങളുടെ നാട്ടിൽ ശവസംസ്കാര ചടങ്ങുകൾ മതപരമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഹിന്ദുക്കൾ ചിതയൊരുക്കി സംസ്കരിക്കുന്നു ക്രിസ്ത്യാനികളും മുസ്ലിംസും കുഴുച്ചിടുകയാണ് പതിവ് സെമിത്തേരിയിൽ കൊണ്ടു വന്നു കുഴിച്ചിടുകയാണ് പതിവ് പിന്നേ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മരണവിവരം നാട്ടുക്കാരെ മുഴുവൻ അറിയിക്കാൻ വേണ്ടി അന്നൗൺസ് ചെയ്യാറുണ്ട് അത് ഏതെങ്കിലും വാഹനത്തിൽ ചെറിയ മൈക്ക് ഉപയോഗിച്ചു ചെറിയ ബോക്സ് ഉപയോഗിച്ച് ഇന്ന ആൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം നാട്ടുക്കാരെ മുഴുവൻ അറിയിക്കാറുണ്ട് അതുപോലെ തന്നെ പോസ്റ്റർ അടിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ നാട്ടിൽ മുഴുവൻ ഒട്ടിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാറുണ്ട് ഒരുപക്ഷേ അത് അവർക്ക് ആ സമയത്ത് പ്രയോജനം ചെയ്യുമെങ്കിലും വളരെ നാളുകൾക്ക് ശേഷം അവിടെയും ഇവിടെയും അടിച്ച് നമ്മളെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുന്ന പരേതൻ്റെ രൂപം കാണുമ്പോൾ നമുക്ക് വളരെ അധികം സങ്കടം തോന്നും കാരണം അവരെ വെറും കോമാളികളാക്കുന്ന രീതിയിലാണ് ചിലപ്പോൾ അവരോ മോളിൽ വേറെ എന്തെങ്കിലും പോസ്റ്ററുകൾ കൊണ്ട് ഒട്ടിക്കും എന്നിട്ട് സ്ഥലം വിൽപ്പനയ്ക്ക് അല്ലേ വേറെ അതുപോലെയുള്ള കോമാളിത്തരമായിട്ടുള്ള രീതിയിലേക്കൊക്കെ മാറുകയാണ് അതുകൊണ്ട് ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന പരമാവധി നിർത്തുന്നതാണ് നല്ലത് പിന്നെ എന്താണ് എൻ്റെ അഭിപ്രായം പിന്നെ അതുപോലെ തന്നെ പടമായിട്ടും പോയതായിട്ടും മറന്നവരെ അപമാനിക്കുന്ന ഒരു ഇതാണ് സാധാരണ പരേതരെ എപ്പോഴും നമ്മൾ അവർക്ക് ഇനി നമ്മളെ ഒന്നും ചെയ്യാന്ന് ഒക്കത്തില്ല അതുകൊണ്ട് ഒരു മര്യാദയെന്ന നിലയിലവർക്ക് കൂടുതൽ അവരെ ഒരിക്കലും അപമാനിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ പിന്നേ ക്രിസ്ത്യാനിയുടെ രീതിയിൽ ഇതു പോലെയുള്ള കോമാളിത്തരം കാണാറുണ്ട് കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വലിയ ബോക്സ് വലിയ മൈക്കുകൾ സ്ഥാപിച്ചു പ്രാർത്ഥനയും അതുപോലെയുള്ള ശവസംസ്കാരം അതിനോട് അനുബന്ധിച്ചുള്ള പ്രാർത്ഥനയും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വച്ചു ആ നാട് മുഴുവൻ ഇളക്കി മറിക്കുന്ന ഒരു സ്വഭാവം ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ട് അതും ഒരു മാതിരി കോമാളിത്തരം പോലെയാണ് തോന്നാറുള്ളത് അതുപോലെ തന്നെ ഹിന്ദുക്കളും ഇതുപോലെയുള്ള കത്തിച്ചു ഒരു മാതിരി ആക്കാറുണ്ട്